പിന്നെ രണ്ട് ഓറഞ്ചൂസ് അതില് രണ്ടും ഷുഗറും ഐസും വേണം ദെൻ ഡെസ്സേർട്ടായിട്ട് ഒര് ചോക്ലറ്റ് ഐസ്ക്രീമും ഒരു സ്പാനിഷ് ഡിലൈറ്റ് രണ്ട് ബോക്സ് ഗുലാബ് ജാമുൻ ഇത്രയും കൂടെ ആടെയ്തോ ഓകെ